അതേ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു ഇതിപ്പം ഒരു മണിക്കൂറിൽ കൂടുതൽ ആയല്ലോ ഞാൻ ഇവിടെ എമർജൻസി ആയിട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ് ഞാൻ എപ്പം ബുക്ക് ചെയ്തതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അസൌകര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നേരത്തെ കൂട്ടി പറഞ്ഞുകൂടെ അപ്പോൾ നമ്മൾ ഒരു ഒരാൾ ഒരു കസ്റ്റമർ വിളിച്ചതിന് ശേഷമാണ് ഇങ്ങനെ മര്യാദയില്ലായ്മയാണോ ഈ കാണിക്കേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്താൽ വേറെ ക്യാബ് ഞാൻ ബുക്ക് ചെയ്തേനേല്ലോ ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യമായിരുന്നു അത്രയ്ക്ക് എമെർജെൻസി ആയിട്ട് ആയിരുന്നു ഞാൻ നിൽക്കുന്നത് അന്നേരം ഞാൻ നിങ്ങളെ കാത്ത് കാത്ത് കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുവാണ് ആസപൊ എനിക്കും അത്യാവശ്യമായിട്ട് പോവണം അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു മീറ്റിങ് ക്യാൻസൽ ആയി ഇനി ഇപ്പോൾ എനിക്ക് അടുത്ത് ഞാൻ സമയം മാറ്റി ഇത് നിങ്ങൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇപ്പോൾ എന്ത് വേണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എത്ര നേരമായി ഇപ്പോൾ എനിക്ക് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇത് നോക്കിയാണോ ചെയ്യേണ്ടത് ഒരാൾ ബുക്ക് ചെയ്യുമ്പോൾ അയാളുടെ സൗകര്യങ്ങൾ നോക്കിയല്ലേ വരേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഈ ക്യാബ് എടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ബോധം ഒന്നും ഇല്ലേ ഞാൻ എത്ര നേരമായി ഇപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായില്ലേ ഇവടുന്നിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ എന്തായാലും ഈ ക്യാബ് ക്യാൻസൽ ചെയ്യുവാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പോവുകയായോണ്ട് ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യുവാണ് എനിക്ക് ഇനി ഒന്നും അറിയേണ്ട എന്തായാലും ഇതുപോലെ ഇനി കാണിക്കരുത്